ആ വീട് വേണമെന്ന് പറയാം നമുക്കൊരു വീട് വേണം അത് സിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സിറ്റിയ സിറ്റിയാണോ ഉദ്ദേശിക്കുന്നത് സിറ്റി നമ്മൾ ചാനശ്ശരി ആണ് കുറച്ചുംകൂടെ ഒരു ഇതായിരിക്കും അത് ചാനശേരി എന്ന് പറയുന്നത് നമുക്ക് ഞാനൊരു ക്രിസ്ത്യനാണ് നമുക്ക് അതിനകത്തെ പള്ളിയോട് ചേർന്ന് കിട്ടിക്കഴിഞ്ഞാൽ പള്ളിയൊക്കെ അടുത്ത ആ ലോക്കാലിറ്റിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും

പാറ പാറപ്പള്ളി ആ പാറപ്പളി ദൂരം ഉണ്ട് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ആ ആ ആ ആ ഓക്കെ ഓക്കെ ഇരുനില ഇരുനിലയുംകൂടെ കൂട്ടി പിന്നെ രണ്ടുംകൂടെ കൂട്ടി മൂന്ന് മൂന്ന് ബെഡ്റൂമേ ഉള്ളൂ

ഇതല്ല ഈ താഴെത്തെ ഫ്ലോറ് ആ അതിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൌകര്യങ്ങളൊക്കെ ഓക്കെയാണ് പക്ഷെ അതിലെ റേറ്റും കാര്യങ്ങളും റേറ്റ് എത്രയാണ് ആ വാടക ആ അപ്പോൾ പതിനഞ്ച് പതിനഞ്ച് രൂപ വാടക പതിനഞ്ച് രൂപ വാടക ഒരു ലക്ഷം രൂപ സെക്കൂര്റ്റിയോ ആ നമ്മൾ എത്ര വർഷത്തേക്കാ അതിൽ എഗ്രിമെൻറ്റ് എഴുതുന്നത് പതിനൊന്ന് മാസമായി

ആ ശരി ആ ആ ആ ഹലോ മ് അത് ഈ പാറപ്പള്ളി അടുത്ത് തന്നെയാ ആ അത് കുഴപ്പം ഇല്ല അരക്കിലോം തൂക്കിയാൽ കുഴപ്പം ഇല്ല അ അതിൻ്റെ അതിൻ്റെ എങ്ങനാ കാര്യങ്ങൾ റേറ്റും കാര്യങ്ങളും

പത്ത് ലക്ഷം രൂപ ഒരു എട്ടിനാണെങ്കിലും ഓക്കെ എട്ടിനാണെങ്കിൽ ശരിയാ പറമ്പും കാര്യങ്ങളൊക്കെ ശരിയാ നമുക്ക് പത്ത് ലക്ഷം രൂപ നമുക്ക് ബാങ്ങിലിട്ട് കഴിഞ്ഞാൽ അതിൽ നമുക്കതിന്റെ ഇൻട്രസ്റ്റ് കണക്കെല്ലാം കൂട്ടിയാണ് ഞാൻ പറഞ്ഞത് പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞത്

ആ എന്നാൽ ശരിയാ നോക്കാം നിങ്ങൾക്ക് സംസാരിക്കാം